നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു വിനോദം എന്ന് പറയുന്നത് സിനിമകൾ തന്നെയാണ് സിനിമകളിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഏ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ എന്നു പറയുന്നത് നിറമാണ് നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും നാ നമ്മുടെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതുമായ ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് നിറം അതിലെ കുഞ്ചാക്കോ ശാലിനി കോമ്പോ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അതിൽ തന്നെ ശാലിനിയുടെ ഹെയർ സ്റ്റൈൽ ആയിരുന്നാലും കുഞ്ചാക്കോ ബോബൻ്റെ ഹെയർ സ്റ്റൈൽ ആയിരുന്നാലും അവരുടെ ഡ്രസ്സിങ് ധാരണ രീതികൾ ആയിരുന്നാലും എല്ലാം വളരെ മനോഹരമാണ് അതുകൊണ്ട് തന്നെ ആ സിനിമ കണ്ടോണ്ടിരിക്കാനും നമുക്ക് വളരെയധികം ഇഷ്ടമാണ് അതുപോലെ തന്നെ അതിൽ ഒരു കോമഡി താരമായ ഒരു തമിഴ് ആക്ടറസ്സും കൂടെ ഉണ്ട് അത് നല്ലൊരു അഭിനയം നമുക്ക് ചി ചിരിച്ചുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കോമഡി എന്ന് പറയുന്നത് ശുക്രിയ തന്നെയാണ് അതുപോലെ തന്നെ നമ്മളെ ഈ സിനിമകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ന നമ്മൾ സിനിമ കണ്ടുതന്നെയാണ് ഓരോ ട്രെന്റുകളും നമ്മൾ ഡ്രസ്സിങ്ങിലായിരുന്നാലും ഹെയർ സ്റ്റൈലു ആയിരുന്നാലും എല്ലാം നമ്മൾ നടി നടന്മാരെ അനുകരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വസ്ത്രധാരണകൾ പറയുകയാണെങ്കിൽ ഈ ചോക്ലേറ്റ് സിനിമകളിൽ സാരി പിന്നെ അത് സാരി ട്രൻഡിങ് ചോക്ലേറ്റിലെ ചോക്ലേറ്റ് സാരി ആയിട്ട് ട്രെൻഡിങ് ആവുകയും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഒരു സിനിമ ആയ സിനിമയിൽ ഉള്ള ഗാനത്തിലെ എൻ്റമ്മേടെ ജിമിക്കി കമ്മൽ അതിലുള്ള ജിമിക്കി കമ്മൽ നമ്മുടെ സാരി ആയിട്ടും ചുരിദാർ ആയിട്ടും ട്രെൻഡിങ് ആവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കലങ്കാരി പിന്നെ കലങ്കാരി അതൊക്കെ ഓരോ സിനിമകളിൽ ഓരോ നടിമാരിടുന്ന ഓരോ ഓരോ തരം ഡ്രസ്സുകളാണ് നമ്മുടെ വിപണികൾ വിപണികളിൽ ഓരോ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഓരോ ഡ്രസ്സുകളാണ് ഓരോ മോഡലിൻ്റെ പേരിലായിട്ട് ഇറങ്ങുന്നത്